ജലദോഷത്തിന് പറ്റിയത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഈ നമ്മൾ വളർത്തുന്ന ഔഷധ ചെടികളായ തുളസി ഈ കണകൂർക്ക അതൊക്കെ ചവച്ച് കഴിച്ചാൽ തന്നെ ജലദോഷത്തിന് ഒരു നല്ലൊരു നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ചുക്ക് കാപ്പി ചുക്ക് ഇഞ്ചി ഇപ്പൊ ഇതൊക്കെ ഇട്ട ഒരു നല്ല കുരുമുളക് ഒക്കെ ഇട്ട ക ചൂട് കാപ്പി കുടിച്ചാലും ഈ ജലദോഷത്തിന് നല്ലത് തന്നെയാണ് അത് നമ്മുടെ ഇതിലുള്ള വൈറസുകളും ഇതൊക്കെ അത് നീക്കം ചെയ്ത് പോകും പിന്നെ ഏറ്റവും നല്ലൊരു ഇത് എന്ന് വെച്ചാൽ നമ്മൾ ആവി പിടിക്കുക നല്ല ചൂട് വെള്ളത്തിൽ അമൃതാഞ്ജനും വിക്സും പുരട്ടീട്ട് നമ്മൾ നല്ല പുതപ്പും നല്ല ആവി പിടിച്ചാലും ഇത് മാറാൻ നല്ലൊരു ഗുണം തന്നെയാണ്